ഹലോ ധനലക്ഷ്മി ടെക്സ്റ്റയിൽസ് അല്ലെ ആ മാഡം ഞാൻ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത് പിന്നെ എനിക്ക് ബനാറസ് ആ ഒരു സിൽക്ക് ടൈപ്പിലുള്ള ഒരു സാരി വേണമായിരുന്നു ഒരു ഫങ്ഷൻ മാര്യേജ് ഫങ്ഷന് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ മാഡം നമ്മൾക്ക് ഒരു ഒരു മൂന്നു നാല് സെറ്റ് വേണം പിന്നെ ഇതിൻ്റെ കളേഴ്സ് ഒക്കെ ഒരുപാട് കളേഴ്സിൽ ഉണ്ടാവുമോ കളക്ഷൻ ആ ഓക്കെ ഓക്കേ ഇപ്പോൾ ഇത് വെള്ളത്തിലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ തുണിയുടെ ക്വാളിറ്റിയൊക്കെ എങ്ങനെ നല്ലതാണോ ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾ അഞ്ചാറെണ്ണം വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടുമോ മാഡം അപ്പോൾ ഒരു അഞ്ഞൂറ് ആകുമ്പോൾ ഇപ്പോൾ നല്ലോണം കുറഞ്ഞില്ലേ കുറച്ചും കൂടി ഓക്കെ ഓക്കെ

ഓക്കെ മാഡം ആ ആ ഓക്കെ നമുക്ക് ഇപ്പോൾ അർജൻ്റായിട്ട് ഒരു എന്താണ് പറയുക ഒരു മെറൂൺ കളറിലൊക്കെയാണ് വേണ്ടത് അപ്പോൾ അതിൽ കളർ കുറച്ചും കൂടി മെറൂൺ ഗ്രീൻ ഒരേ കളറല്ല വേറെ വേറെ കളർ പക്ഷെ ഏകദേശം റേറ്റ് സെയിം ആയിരിക്കണം ആ ഓക്കേ ഓക്കെ ശരി മാഡം ഓക്കെ ഓക്കെ ഓക്കെ ശരി ഓക്കെ താങ്ക് യു